ബഹുമാനപ്പെട്ട സാർ ജീ എസ് റ്റി വകുപ്പിൽ നിന്നും എനിക്ക് പണമടയ്ക്കാൻ വൈകിയതിന് ഒരു പിഴ നോട്ടീസ്സ് ലഭിച്ചിരുന്നു അതിന്റെ റെഫറൻസ് നമ്പർ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് എനിക്കെതിരെ പിഴ ലഭിക്കാൻ തക്ക തെറ്റുകളൊന്നും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ജീ എസ് റ്റിത്തു ക അടയ്ക്കേണ്ടത് ഇരുപതാം തീയതി ആയിരുന്നു ഇരുപതാം തീയതിക്ക് വേണ്ടി ഞാൻ പത്തൊൻപതാം തീയതി മുതൽ ജീ എസ് റ്റിടെ സൈറ്റിൽ പൈസ അടയ്ക്കുവാനായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ജീ എസ് റ്റി ടെ സൈറ്റ് പൂർണ്ണമായും ഓഫായിരുന്നതിനാൽ എനിക്ക് പൈസ അടയ്ക്കാൻ സാധിച്ചില്ല ആയതിനാൽ എനിക്ക് എതിരെ വന്ന ജീ എസ് റ്റി വക്പ്പിൽ നിന്നു ഉള്ള പിഴ നോട്ടീസ് റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ പൈസ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പീ എഫ് സൈറ്റ് ഓഫായി കിടന്നതിന്റെ സ്ക്രീൻ ഷോട്ട്കളും ഞാൻ ഇതോടൊപ്പം സമർപ്പിക്കുന്നു ഇരുപത്തിയൊന്നാം തീയതി പൈസ അടച്ചതിന്റെ തുകകളും അതിന്റെ റെസിപ്റ്റും ചെല്ലാനും ഇതോടൊപ്പം വെയ്ക്കുന്നു എന്ന് എത്രയും വേഗം ഇതിലൊരു നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ച് കൊണ്ട് എന്ന് വിധേയൻ